ഹാലോ ഇത് ഫ്ലിപ്ക്കാട്ട് ഓൺലൈൻ ഷോപ്പിങ്ങ് അല്ലേ ഞാൻ ഒരു പൻ്റ് ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അറിയാതെ എനിക്ക് തെറ്റായ നിറമാണ് വന്നിരിക്കുന്നത് അതൊന്ന് എനിക്ക് ക്യാൻസല് ചെയ്തു തരണമായിരുന്നു എന്താണെന്ന് വച്ചാൽ അത് അത് എനിക്ക് ഇച്ചിരി ഫിറ്റാണ് എന്റെ സൈസ്സ് കറക്റ്റ് അല്ല അത് പിന്നെ കളറും ഞാൻ ഉദ്ദേശിച്ച കളറല്ല എനിക്ക് കിട്ടിയിരിക്കുനത് അതുകൊണ്ട് അതൊന്ന് ക്യാൻസല് ചെയ്തു തരണം പിന്നെ അത് എന്തോ അതിന്റെ വരും വരാഴികകൾ ഞാൻ എന്തുവാന്ന് വച്ചാൽ എല്ലാം ചെയ്തോളാം ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു ഇത് ചെയ്യണം മാം